ഹലോ ഹബീബി ഹോട്ടൽ അല്ലേ ഞാൻ വിളിക്കുന്നത് ചെറുവാഞ്ചേരിയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു ഹാഫ് ആൻ ഹവറിനുള്ളിൽ നിങ്ങളുടെ സ്പെഷ്യൽ അൽഫാം മന്തി വേണമായിരുന്നു സ്ഥലം വലിയ വീട്ടിൽ ചെറുവാഞ്ചേരി ഓക്കേ അപ്പോൾ ഞങ്ങൾക്ക് എന്റെ കുറച്ച് ഫ്രെണ്ട്സ് ട്രിവാൻഡ്രാത്തിൽ നിന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കിപ്പോൾ മന്തി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഇതിന് മുൻപ് നിങ്ങളുടെ ഹോട്ടലിൽ വന്നവർ കഴിച്ചിരുന്നു അപ്പോൾ അവർക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് ഒരുതവണ കൂടി കഴിക്കണമെന്നുണ്ട് പെട്ടന്ന് ഫുഡ് ഓർഡർ ചെയ്താൽ ഉപകാരമായിരുന്നു പറഞ്ഞിരുന്നു ഇപ്പോൾ ചെറിയ മഴയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരിതിൽ ഭക്ഷണം കഴിക്കാനിരിക്കുകയായിരുന്നവർ അവർക്കപ്പോൾ നിങ്ങളുടെ മന്തി വല്ലാതെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ഹാഫ് ആൻ ഹവറിനുള്ളിൽ ഓർ വൺ ഹവർ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അതിനുള്ളിൽ ഭക്ഷണം കിട്ടിയാൽ മതി നിങ്ങളുടെ സ്പെഷ്യൽ ഫുൾ അൽഫാമും അൽഫാം മന്തിയും പിന്നെ അൽഫാമും പിന്നെ ഫ്രൈഡ് റൈസും മൂന്ന് ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ രണ്ട് മട്ടൺ ഫുൾ മട്ടൺ മന്തി ആ അപ്പോൾ അവർ കുറച്ച് അഞ്ചാറു പേരുണ്ട് നല്ല നന്നായി ഫുഡ് കഴിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യമായിട്ട് ഫുഡ് വേണം അപ്പോൾ നിങ്ങൾ ഒരു മണിക്കൂറിനുള്ളിൽ ഫുഡ് എത്തിച്ചാൽ വളരെ ഉപകാരമായിരുന്നു താങ്ക്സ് പെട്ടന്ന് എത്തിക്കുക ഓക്കേ